നമുക്ക് കൃഷ്ണഗിരിയിൽ ഒരു സ്റ്റേഡിയം ഉണ്ട് ക്രിക്കറ്റ് നടത്താൻ പറ്റിയിട്ടുള്ള ഇഷ് നല്ല സൗകര്യങ്ങളുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റേഡിയം ആണ് മീനങ്ങാടി കൃഷ്ണഗിരിയിലുള്ളത് അപ്പോൾ ഒത്തിരി ആൾക്കാർ അവിടെ വരുന്നുണ്ട് പിന്നെ ഗ്രൗണ്ട് ഗ്രൗണ്ട് നോക്കുവാണേൽ വയനാട്ടിൽ ഒത്തിരി വലിയ വലിയ ഗ്രൗണ്ടുകൾ ഉണ്ട് സ്പോർട്സ് ഒക്കെ നടക്കാൻ വേണ്ടീട്ട് ഒത്തിരി ഒത്തിരി വലിയ വലിയ ഗ്രൗണ്ടുകൾ അപ്പം നമുക്ക് വേണ്ടത് കുറെ സ്പേസ് വേണം അതായത് ഓട്ടത്തിലായാലും ഹൈ ജമ്പ് അതൊരു സ്പോർട്സ് നടക്കുന്ന സ്ഥലമാണെങ്കിലും സ്കൂൾ ബെയ്സ് നടക്കുന്ന ആണെങ്കിൽ ഹൈ ജമ്പ് ലോങ്ങ് ജമ്പ് ഓട്ടം അപ്പം വിവിധതരം പിന്നെ ഷോട്ട്പുട്ട് അങ്ങനെയുള്ള കുറേ പരിപാടികൾ നടക്കുമ്പോൾ നമുക്ക് ഒത്തിരി സ്പേസ് വേണം അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള ഗ്രൗണ്ടിൻ്റെ വിസ്തീർണം അത്രേം തന്നെ കൂടുതലായിരിക്കണം അന്നാലേ എല്ലാ പരിപാടികളും വേഗം നടക്കാൻ പറ്റുള്ളൂ അത് സൗകര്യത്തിനാകും അങ്ങനെ നോക്കുവാണേൽ നമുക്ക് ഒത്തിരി സ്പോർട്സ് നടത്താൻ പറ്റുന്ന ഒത്തിരി ഗ്രൗണ്ടുകളുണ്ട് മീനങ്ങാടി സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഉണ്ട് അത് വലിയ ഗ്രൗണ്ട് ആണ് പിന്നെ മാനന്തവാടി ഹൈസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈ സ്കൂളൊക്കെ നിൽക്കുന്നത് വലിയ ഗ്രൗണ്ടിലാണ് പിന്നെ പിന്നെ നോക്കുവാണേൽ വെള്ളമുണ്ട സ്കൂളിലും നല്ല ഗ്രൗണ്ട് ഉണ്ട് കാക്കവയൽ അങ്ങനെ വടുവഞ്ചാൽ അപ്പോൾ എല്ലാ സ്കൂളുകൾക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ഇപ്പോൾ ഉണ്ട് അതിനുള്ള സ്ഥലം സർക്കാരീന്നു തന്നെ ഇപ്പോൾ അനുവദിച്ചു കിട്ടീട്ടുണ്ട് അതായത് വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ അവർ സ്പോർട്സിനും മുൻതൂക്കം കൊടുക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അത് പ്രോത്സാഹിക്കപ്പെടുന്നും ഉണ്ട്